ആ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ആശുപത്രിയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടി ജില്ലാ ആശുപത്രി ആണ് അപ്പം പാവപ്പെട്ട ഉളളൂ പാവപ്പെട്ടുള്ളവരൊക്കെ അവരെ അവിടെ തന്നെയാണ് കാണിക്കുന്നത് അല്ലാത്തവരൊക്കെ ഇവിടെ സെൻ്റ് ജോസഫ് അങ്ങനെ ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് നേരം ക്യു നിന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നെ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് ചിലവർക്ക് തലകറങ്ങി വീണിട്ടുണ്ട് ചിലവർ കുഴഞ്ഞു വീണു മരിക്കും ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതായത് കുറേ നിന്ന് നമുക്കിങ്ങനെ തളരും ചിലപ്പോൾ ചിലവർ രാവിലെ പെട്ടെന്ന് അതായത് പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവരൊന്നും ഭക്ഷണം പോലും കഴിക്കാണ്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ തളർച്ച ഉണ്ടായിട്ട് തല കറങ്ങലും അങ്ങനത്തെ പല പ്രശ്നങ്ങളും അങ്ങനത്തെ അനന്തര ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതായത് വയ്യാത്ത ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഒക്കെ ആയിരിക്കും പോകുന്നത് ഇപ്പോൾ സുഖമില്ലാത്തവരാണെങ്കിൽ അവർ മാത്രം ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് അപ്പോൾ അവർ അവിടെ ഷീട്ട് എടുത്ത് കുറേ ഒക്കെ കുറേ നേരം ഷീട്ട് എടുക്കാൻ നിന്ന് അത് കഴിഞ്ഞു ഡോക്ടറെ കാണിക്കാൻ അതിലും വലിയ തിരക്കായിട്ട് കുറേ നേരം അവിടെ നിന്ന് പിന്നെ അതു കഴിഞ്ഞ് മരുന്ന് മേടിക്കാനുള്ള തിരക്ക് അതിലും വലുതായിരിക്കും അപ്പോൾ അങ്ങനെ നിന്നിട്ട് വിഷമിക്കേണ്ട അവസ്ഥകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്